എൻ്റെ പ്രദേശത്ത് പിന്നെ കേരളത്തിലെ പ്രധാനമായിട്ടുമുള്ള സംസ്കാരിക സംഘങ്ങളെന്നു പറയുന്ന അല്ലെങ്കിൽ കൾച്ചറൽ ഗ്രൂപ്പെന്നു പറയുന്നത് മതപരമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് അല്ലെങ്കില് അതുമായിട്ടുള്ളൊരു കൾച്ചറൽ ഗ്രൂപ്പുകളാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് അപ്പോള് ഞങ്ങള് ക്രിസ്ത്യൻസ് പല വിഭാഗത്തില്പ്പെടുന്ന ക്രിസ്ത്യൻസുണ്ട് ഹിന്ദുക്കളുണ്ട് അത് പല വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദു വിഭാഗക്കാരുണ്ട് പിന്നെ മുസ്ലീം സമൂഹവുമുണ്ട് അപ്പോള് ഈ മൂന്ന് സമൂഹത്തിലും പെടുന്ന പിന്നെ കാസ്റ്റ് ബേസില് ചെറു സമൂഹങ്ങളുണ്ട് അവരെ വളരെ കൃത്യമായിട്ട് നമ്മള് ഐഡൻ്റിഫൈ ചെയ്യാറില്ലെങ്കില്പ്പോലും അങ്ങനെയുള്ളവരൂണ്ട് പക്ഷെ എല്ലാവരുമായിട്ട് ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകയായതുകൊണ്ട് ഞാൻ എല്ലാവരുമായിട്ട് ഇടപഴകാറുണ്ട് എല്ലാ സമൂഹങ്ങളിൽ നിന്നും എനിക്ക് നല്ല സുഹൃത്തുക്കളുമുണ്ട് സുഹൃദ് ഫാമിലി കുടുംബവുമായിട്ടും നല്ല സുഹൃത്തുക്കളുണ്ട് പ്രത്യേകിച്ച് മറ്റു സമൂഹങ്ങളിൽപ്പെടുന്നവരുമായിട്ട് അവരുടെ ഫാമ് കുടുംബങ്ങളുമായിട്ട് എനിക്ക് നല്ല സൗഹൃദവുമുണ്ട് അവരുമായിട്ട് നന്നായിട്ട് ഇടപഴകാറുണ്ട്